ആ ബ്രോ പറ

ഓക്കെ ബ്രോ അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ ആ ഓക്കെ ബ്രോ നമമുക്കേത് ഹെയർക്കട്ടാ അതൊന്നും വിഷയം ഉള്ള കാര്യമല്ല നമുക്ക് അല്ല ബ്രോ ബ്രോ ഫോട്ടോ അയച്ച് തന്നാൽ മതി അയ്യോ ബ്രോ ബ്രോയ്ക്ക് ബ്രോയ്ക്ക് വെട്ടാൻ പറ്റിയ ഹാർസ്റ്റൈലും അയച്ച് തന്നാൽമതി ഇൻസ്റ്റാഗ്രാമിൽനിന്നോ അല്ലെങ്കിൽ പ്രിൻ പിന്നീന്നോ പിൻട്രസ്റ്റീന്നോ വല്ലതും എടുത്തിട്ട് ബ്രോ അയച്ച് തന്നാൽ മതി അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം ബ്രോ എപ്പോഴത്തേക്കിനായിരിക്കും വരുന്നത് ഓക്കെ ഓക്കെ

ആ ഒ ഓക്കെ ഓക്കെ നമുക്ക് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാകും അത് വിഷയം ഇല്ലായിരിക്കും അല്ലേ കുഴപ്പം ഇല്ലല്ലോ ആ നമുക്ക് ആയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാം സെറ്റപ്പ് ആക്കാം ചെയ്യും ചെയ്യും ചെയ്യും ഏ റേയ്റ്റ് ഹെയർക്കട്ടിന് ഇവിടെ ഹെയർക്കട്ടിന് റ്റു ഹൻഡ്രഡ്സ് ആണ് ഫേഷ്യല് കൂട്ടിയാവുമ്പം ത്രീ ഹൻഡ്രഡ് ആവും

ബ്രോ ബ്രോ നേരത്തെ ബ്രോ നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ടായത് കൊണ്ട് നമുക്കൊരു ഫിഫ്റ്റി റുപ്പീസ് കുറയ്ക്കാം റ്റു ഫിഫ്റ്റി ഓക്കെ അതെന്താത് ഓക്കെ ഓക്കെ സോറി ബ്രോ സോറി സാർ സോറി സാർ ദയവായി അ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഹെയർകട്ട് മാത്രമല്ല അതുപോലെ കളറിങ്ങൊണ്ട് പിന്നെ പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് കളറിങ്ങ് നമുക്ക് ഏത് കളറ് വേണം നിങ്ങൾക്കിഷ്ടം ഉള്ള ഏത് കളറും നമുക്ക് ബ്ലൂ ഓക്കെ ഡൺ നമുക്കെല്ലാ കളറും അവൈലബ്ളാ അല്ല നമുക്കെല്ലാ കളറുമുണ്ട് ബ്രോ നമുക്ക് എല്ലാ കളറും അവൈലബ്ള് ആണ് ബ്രോ നമുക്ക് പലതുമായിട്ട് മിക്സ് ചെയ്താണ് മിക്സ് ചെയ്ത്

ഓക്കെ ഓക്കെ നമ്മൾ പലതും മിക്സാക്കി മിക്സാക്കി കയറ്റും ആ അതെയതെ അതെയതെ ഓക്കെ ഓക്കെ ബ്രോ

ഓക്കെ ഓക്കെ ഓക്കെ ബ്രോ നമുക്കൊരു നമുക്കും നമ്മളും ഒരു ആക്റ്ററാണ് നമുക്ക് വേണേൽ ഒരു അവസരം ഒരുക്കിത്തരുവാണെങ്കിൽ നമുക്ക് റേയ്റ്റൊക്കെ കുറയ്ക്കാം ഞാനും ഒരു ആക്റ്ററൊക്കെയാണ് നമുക്കൊരവസരം തരുവായിരുന്നെങ്കിൽ നമുക്ക് റേയ്റ്റൊക്കെയൊന്ന് കുറയ്ക്കാം

ഓ മൈ ഗോഡ് ഓക്കെ ശരി അത് കുഴപ്പം ഇല്ല ബ്രോ കുഴപ്പം ഇല്ല ആ കണ്ടിട്ടുണ്ട് ബ്രോ

ഓക്കെ ബ്രോ ഓക്കെ ബ്രോ അപ്പം ശരി നമുക്ക് ഇച്ചിരി തിരക്കായിപ്പോയി ഇജ്ജ് ഞാൻ ഞാൻ ഞാൻ ലൊക്കേഷന് അയക്കാം ഞാൻ ലൊക്കേഷനയച്ചേക്കാം ഈ ഈ ഈ നമ്പറ് വാട്സപ്പ് ഉള്ളതല്ലേ ഈ നമ്പറീ വാട്സപ്പ് ഉള്ളതല്ലേ ഓക്കെ മെയില് ഐ ഡി പറഞ്ഞാൽ മതി പറഞ്ഞോ പറഞ്ഞോ ഓക്കെ ഓക്കെ ഓക്കെ ബ്രോ ബ്രോ ഇത് ഇച്ചിരി തിരക്കായിരുന്നു ബ്രോ അപ്പം ശരി ബ്രോ നമുക്ക് ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ

ഓക്കെ ബ്രോ ശരി